ഡോക്ടർ രഞ്ജന അല്ലേ ആ ഡോക്ടറെ ഞാൻ അശ്വതിയാണ് മറ്റേ ചെറക്കൽത്തെ അന്ന് വിളിച്ചിട്ട് ഉണ്ടായിരുന്നില്ലെ ആ ഡോക്ടറെ എനിക്ക് ഇന്നലെ വൈന്നേരം തൊട്ട് നല്ല വയറുവേദനയാന്ന് ഞാൻ കുറച്ച് ജീരക വെള്ളവും പിന്നെ മറ്റേ ഈ ചുക്ക് എല്ലം ഇല്ലേ അത് എല്ലാം കുടിച്ച് നോക്കി പക്ഷെ കുറവ് ഇല്ല നല്ല വേദനയാന്ന് വലത്ത് സൈഡാണ് വേദന എന്തെങ്കിലും ആ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഞാൻ ഡോക്ടറെ വന്ന് കാണണോ പുറത്ത് നിന്ന് ആ ഇന്നലെ ഉച്ചക്ക് ഉച്ച അല്ല ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മറ്റേ ഈ റോഡ് സൈഡില് കിട്ടുന്ന പാനിപൂരി ഇല്ലേ അത് ഇങ്ങനെ കഴിച്ചായിരുന്നു ഇനി അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കുമോ ഇല്ല ഇല്ല ഇല്ല ഇതിന് മുന്നേ ചെറിയ ഒര് വലത്തെ സൈഡ് ഒര് വേദന മാത്രം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇപ്പോൾ നല്ലോണം ആയി മുമ്പ് എല്ലാം ജസ്റ്റ് ജീരകവെള്ളം കുടിക്കുമ്പോൾ തന്നെ കുറഞ്ഞുകൊണ്ടായി ഇപ്പോൾ നല്ല വേദന ആണ് കഴിയുന്നില്ല ഡോക്ടറെ ഛർദി ആ ഉണ്ട് ഉണ്ട് ഞാൻ അഞ്ച് വട്ടം ഛർദിച്ച് അതും ക്ഷീണമാണ് കഴിയുന്നില്ല വയറ് ഇങ്ങനെ തന്നെ പുളഞ്ഞുകൊണ്ട് നിൽക്കുവാണ് വേദന ഈ വലത്തെ സൈഡ് ആണ് നല്ല വേദന വരുന്നു ഇതിന് മുന്നേ ഇങ്ങനെ നല്ല വേദന ഒന്നും വന്നിട്ട് ഇല്ല ഇനി അപ്പെൻഡിക്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുവോ ഞാൻ സ്കാന് ചെയ്യേണ്ടി വരുവോ ആ എന്ത് മരുന്നാണ് അതെയോ അത് ഒന്ന് കൂടി പറയുമോ എനിക്ക് കേൾക്കുന്നില്ല

അതെ അല്ലേ പക്ഷെ എനിക്ക് നല്ല വേദന ഉണ്ട് ഇപ്പോൾ കുറെ ഇത് എല്ലാം ഞാൻ വന്ന് സ്കാന് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കട്ടെ എനിക്ക് ഒരു പേടി എനിക്ക് എന്തെങ്കിലും ആയിപ്പോയാലോന്ന് പറഞ്ഞിട്ട്

ആ അപ്പോയിൻമെൻറ്റ് ടോക്കൺ എടുക്കണോ ഇപ്പം തന്നെ അല്ലെൽ നഴ്സിനെ വിളിച്ചാൽ മതിയോ

ആ ഡോക്ടർ ഒന്ന് പറ ഞാൻ വേഗം വരാം എനിക്ക് പേടി ആകുന്നു ഡോക്ടറെ നല്ല വേദന ആകുന്നു ഒന്ന് നോക്കി നോക്കുവോ ആ ശരി എന്നാൽ ഞാൻ എന്നാൽ വേഗം വരുവാണേ ആ ഓക്കെ ശരി